ഹലോ ആ ഇത് പെയിൻ്ററ് രാഗേഷല്ലേ ആ നമ്മൾ ഇത് ബോയിക്കാനം ഉളിയാത് എന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മളൊരു വീട് വീടില്ലെ പിന്നെ ഇതൊക്കെ കഴിഞ്ഞു അതിൻ്റെ തേപ്പും ആ ആ തേപ്പ് തേപ്പിൻ്റെയെല്ലാം കഴിഞ്ഞു പണിയെല്ലാം സെറ്റായി തേപ്പിൻ്റെ പണി കഴിഞ്ഞു ഇതിന് പെയിൻറ്റിൻ്റെ ചെയ്യാൻ നമ്മളുദ്ദേശിക്കുന്നുണ്ട് അപ്പം ഒരു രണ്ടായിരത്തഞ്ഞൂർ സ്കൊയർ ഫീറ്റുള്ള വീടാണ് ഏ രണ്ടായിരത്തഞ്ഞൂർ സ്കൊയർ ഫീറ്റ് വരും അപ്പോൾ നിങ്ങളെ എങ്ങനെയാണത് നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത് ഡെയിലി ഫുള്ളായിട്ടെടുക്കുന്നതോ എല്ലാ മൊത്തമായിട്ടെടുക്കുന്നതോ എങ്ങനെയാണ് നിങ്ങൾ അത് അതല്ല നിങ്ങൾ ഓക്കെ ഓക്കെ ഓക്കെ നിങ്ങൾ ഈ ഏത് പെയിൻറ്റാണ് സജസ്റ്റ് ചെയ്യുന്നത് അതായത് നല്ല പെയിൻറ്റ് ക്വാളിറ്റി ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം അങ്ങനെയൊരു നല്ല കുറച്ചു കൂടി നല്ല ക്വാളിറ്റിയുള്ളതേതാണ് ഏത് പേ നോക്ക് അതെ അല്ലേ പൈസേരെ കാര്യമില്ല നമ്മൾക്ക് പൈസ നോക്കുന്നില്ല പൈസ ഇപ്പം എത്രയായാലും കൊഴപ്പൂല അപ്പം നമ്മൾക്ക് കൂടുതൽ കാലം നിൽക്കണം അതായത് നമ്മൾക്കിപ്പം ഒരു വീടിൻ്റെയല്ല പുതിയ വീട് കെട്ടിയിട്ട് ബാക്കിയെല്ലാം നല്ല രീതിയിൽ ചെയ്യുമ്പോൾ പെയിൻറ്റ് മാത്രം നമ്മൾക്ക് നല്ല വണ്ണം മോശമാക്കാൻ പറ്റില്ല ഓക്കെ അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യണം അപ്പം നമ്മൾക്ക് അധികം ടൈമില്ല അത് വച്ചാൽ ഒരു കുറച്ച് നമ്മൾക്കത് പിന്നെ ഹൗസ് വാമിങ്ങ് ഡേറ്റെല്ലാം ഏകദേശം കൺഫേം ആയിട്ടുണ്ട് അപ്പം ഒരു വൺ മന്ത് വൺ മന്ത്ന് ഉള്ളിൽ നിങ്ങൾക്കത് ഫുള്ള് കംപ്ലീറ്റാക്കാൻ പറ്റുമോ വൺ മന്തില് എത്ര എത്ര ദിവസം വേണ്ടി വരും നിങ്ങൾക്ക് ഒരു രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് സ്കൊയർ ഫീറ്റിൽ നിങ്ങൾ നിങ്ങൾ എത്ര പേരാണ് വരുന്നത് എത്ര പേർ വരും ആ അത് കുഴപ്പമില്ല അത് ഞങ്ങൾ നോക്കിയിട്ട് ഞങ്ങൾ സെലക്ട് ആക്കിയിട്ട് ഏത് നിങ്ങൾ ഏത് പേയിൻറ്റെന്ന് നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ അത് നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം കുഴപ്പമില്ല അതെ ഒരു ദിവസം ഞാൻ നിങ്ങളെ വിളിക്കാം നിങ്ങളെ വിളിക്കാം അപ്പം നിങ്ങൾ അവിടെ വന്നിട്ട് ഒന്ന് നോക്കിയിട്ട് സെലക്ട് ആക്കിയിട്ട് കളറ് കളറും നമ്മൾ പറഞ്ഞ് തരാം പേരും നോക്കിയിട്ട് ചെയ്ത് തരാം അപ്പം നിങ്ങൾക്ക് കുഴപ്പം അതെ അല്ലേ അതിൻ്റയും മോളി പോവൂലേ ആ അത് കുഴപ്പമില്ല പക്ഷേ നമ്മൾക്ക് ആ നിങ്ങൾ ടൈമിന് തീർക്കുമല്ലോ കറക്റ്റ് വന്നിട്ട് അതായത് കറക്റ്റ് വന്നിട്ട് നിങ്ങൾ ആ ടൈമിന് തന്നെ തീർത്ത് തരുമല്ലോ അത് നിങ്ങൾ ഒരു ഉറപ്പ് തന്നാൽ മതി വേറെ കുഴപ്പമില്ല ചെയ്യാലോ അപ്പോൾ നിങ്ങളെ ഞാൻ നോക്കിയിട്ട് വിളിക്കാം നിങ്ങൾ ആ അപ്പം നിങ്ങൾ അത് വന്നിട്ടൊന്ന് ചെയ്ത് തെരണോട്ടാ കാരണം ഞാൻ വേറെ ആളെയൊന്നും അന്വേഷിക്കുന്നില്ല നിങ്ങൾ തന്നെ ഫിക്സ് ആക്കുന്നത് അപ്പം നിങ്ങൾ നോക്കിയിട്ടൊന്ന് ഓക്കെ ശരി ശരി ഓക്കെ ഓക്കെ ശരി